സാങ്കേതിക വിദ്യയിലെ പുരോഗതി നമ്മുടെ ജീവിതത്തിൽ വളരെ അധികം മാറ്റങ്ങൾ ഉണ്ടാക്കിട്ടുണ്ട് ഇതില് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് സ്മാർട്ട് ഫോൺ തുടങ്ങിയവ വളരെ വളരെയധികം പുരോഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതിലെ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് മൊബൈലിലൂടെയോ ഇൻ്റർനെറ്റിലൂടെയോ അറിയാൻ കഴിയും പിന്നെ ഉള്ളത് ടിക്കറ്റുകള് ടിക്കറ്റുകള് ബുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ദൂരേയ്ക്ക് യാത്രയ്ക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ആണെങ്കിലും ബസ് ടിക്കറ്റ് ആണെങ്കിലും എല്ലാ തരത്തിലുള്ള ടിക്കറ്റുകളും നമ്മൾക്ക് വീട്ടിലിരുന്നുകൊണ്ടുതന്നെ ബുക്ക് ചെയ്യാം ട്രെയിൻ ടിക്കറ്റ് മാത്രമല്ല നമുക്ക് സിനിമക്ക് ടിക്കറ്റുകളും എന്ത് ടിക്കറ്റുകളാണെങ്കിലും വീട്ടിലിരുന്നു ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഓർഡർ ചെയ്യാം ഓൺലൈനായിട്ട് നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനും വരെ നമ്മള് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വളരെയധികം പ്രയോജനകരമാണ് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റാണ് നമുക്ക് ഏറ്റവും പ്രയോജനകരമായത് ഓൺലൈൻ ഷോപ്പിങ്ങ് പേയ്മെൻ്റ് ബാങ്കിങ്ങ് ബാങ്കുവഴിയുള്ള ഇടപാടുകൾ നടത്താനും എല്ലാത്തിനും വളരെ പ്രയോജനകരമായ ഒന്നാണ് ഇൻ്റർനെറ്റ് ഇപ്പോൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ടുതന്നെ പേയ്മെൻ്റ്കൾ നടത്താം ബാങ്കിങ്ങ് ഇടപാടുകൾ നടത്താം പിന്നെ അടുത്തത് ആശയ വിനിമയം നമുക്ക് ദൂരെ സ്ഥലത്തുള്ള ഒരാളുമായിട്ട് ആശയ വിനിമയം വളരെ സിമ്പിളായിക്കൊണ്ടുതന്നെ നടത്താൻ കഴിയും ഈസിയായിട്ട് അവരോട് സംസാരിക്കാനും വീഡിയോ കോൾ ചെയ്ത് നേരിട്ട് സംസാരിക്കാനും എല്ലാത്തിനുമുള്ള പ്രയോജനം നമുക്ക് ഈ സാങ്കേതിക വിദ്യകൊണ്ട് സാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെത്തന്നെ നമുക്ക് ഒരു കാര്യത്തെ പറ്റി അന്വേഷിക്കാനോ അവരുടെ വിവരങ്ങൾ ശേഖരിക്കാനോ നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം ഗൂഗിൾ വഴി നമുക്കെന്ത് നമുക്ക് അറിയാത്ത എന്ത് കാര്യങ്ങളെക്കുറിച്ചും പറ്റിയും ഉള്ള വിവരങ്ങൾ ഇൻ്റർനെറ്റ് വഴി നമുക്ക് അറിയാൻ സാധിക്കും